സ്കൂളിനു പുറത്തുള്ള ട്യൂഷനെ കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം ട്യൂഷൻ സെൻറ്റേഴ്സ് നല്ലതും ആണ് ചീത്തയുമാണ് ആ രണ്ടും നമുക്ക് പറയാൻ സാധിക്കും കാരണം ഞാൻ എന്ന വ്യക്തി ട്യൂഷൻ ക്ലാസ്സിൽ ഓ എനിക്ക് തോന്നുന്നു സ്കൂൾ ഉണ്ടായിരുന്ന സമയം മുഴുവൻ ട്യൂഷന് ഞാൻ പോയിട്ടുണ്ട് ഐ സി ഐ സി സ്കൂളിൽ പഠിച്ചതുകൊണ്ടു തന്നെ ട്യൂഷൻ വളരെ അധികം അത്യാവശ്യമായിരുന്നു താനും എനിക്ക് അപ്പോൾ ട്യൂഷനു പോകുന്നതിലൂടെ ഉണ്ടായ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് അന്നന്നുള്ളത് ഞാൻ അന്നന്ന് പഠിക്കുമായിരുന്നു ടീച്ചർമാരെ സഹായിക്കുമായിരുന്നു ഇപ്പോൾ സ്കൂളിൽ നമ്മൾ രാവിലെ പോകുന്നു അവിടെ ഒരു മുപ്പതിലേറെ കുട്ടികൾ ഒരു ക്ലാസിലുണ്ടായിരിക്കും അപ്പോൾ ടീച്ചേഴ്സിനു നമ്മളെ എല്ലാവരെയും ഒരുപോലെ ശ്രദ്ധിക്കാൻ കഴിഞ്ഞു എന്നു വരില്ല എല്ലാവരെയും ശ്രദ്ധിക്കുന്നതു പോലെ ജസ്റ്റ് പറഞ്ഞു വിടുകയേ ഉള്ളു പക്ഷേ ട്യൂഷനു പോകുന്നതിലൂടെ നമുക്ക് ഓരോരുത്തർക്കും ഇൻറ്റിവിജ്ജ്വലായിട്ട് നമ്മുടെ ടീച്ചേഴ്സ് നമ്മളെ ശ്രദ്ധിക്കും അതിനാണല്ലോ നമ്മൾ ട്യൂഷനു പോകുന്നത് നമുക്ക് ഇൻറിവിജ്ജ്വലായിട്ട് ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ടും നമുക്ക് അറിയില്ലാത്ത കാര്യങ്ങൾ കുറച്ചു കൂടി നന്നായി പഠിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ട്യൂഷനു പോകുന്നത് അപ്പോൾ ട്യൂഷനു പോകുന്നതിലൂടെ എനിക്ക് തോന്നിയിട്ടുള്ളത് നമുക്കുള്ള അറിവ് കുറച്ചു കൂടി വർദ്ധിക്കാൻ സാധിക്കും ടീച്ചേഴ്സ് നമ്മൾ പൈസ കൊടുക്കുന്നതുകൊണ്ടു തന്നെ നമ്മളെ ഓരോരുത്തരെയും ശ്രദ്ധിച്ചാണ് ട്യൂഷൻ എടുക്കുന്നത് അപ്പോൾ അതു വളരെ ഏറെ നമ്മുടെ കരിയറിന് ഉപയോഗപ്രദമായിരിക്കും ഇപ്പോൾ മാക്സ് പോലെയുള്ള സബ്ജക്ടുകളൊക്കെ പെട്ടെന്നു പഠിക്കാൻ പറ്റുന്ന സബ്ജക്ടുകളല്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ അങ്ങനത്തെ വിഷയങ്ങൾ പഠിക്കാൻ ട്യൂഷൻ ഉറപ്പായും അത്യാവശ്യമാണ് അതുപോലെത്തന്നെ ട്യൂഷൻ്റെ സമയം സമയാധിക്യം മൂലം പഠിക്കാൻ കഴിയാത്ത കുട്ടികളും ഉണ്ട് പുറത്തു ട്യൂഷനു പോയി തിരിച്ചു വീട്ടിൽ വരുമ്പോൾ സമയമൊത്തിരി ആകുന്നുണ്ട് അപ്പോൾ അവർക്കു സ്കൂളിലെ കാര്യങ്ങളും ചെയ്തു തീർക്കാൻ കഴിയുന്നില്ല ട്യൂഷനിലെ കാര്യങ്ങളും ചെയ്തു തീർക്കാൻ കഴിയുന്നില്ല അങ്ങനെ ഒത്തിരി കഷ്ടപ്പാട് എന്നു പറയുന്നവരും ഉണ്ട് പക്ഷേ വേണ്ടതായ രീതിയിൽ രണ്ടും ഒന്നിച്ചു കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും എന്ന് എനിക്കു തോന്നുന്നു പഠിക്കാൻ വേണ്ടിയാണല്ലോ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പകുതി സമയം കളയുന്നത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതു കുറച്ചും കൂടി നന്നായി വളരെ അധികം മികച്ചതായി നമുക്കത് ചെയ്തുതീർക്കാൻ കഴിയും എങ്കിൽ അതു വളരെ നല്ലൊരു കാര്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് അപ്പോൾ സ്കൂളിനു പുറത്ത് ട്യൂഷൻ പോയാലാണ് നമുക്ക് നമ്മുടെ കഴിവുകൾ മെച്ചപ്പെടുത്താൻ പറ്റുന്നത് അല്ലെങ്കിൽ വികസിപ്പിക്കാൻ പറ്റുന്നത് എന്ന് ഉണ്ടെങ്കിൽ ഉറപ്പായും സ്കൂളിനു പുറത്തുള്ള ട്യൂഷനു പോകണം എന്നതാണ് എൻ്റെ അഭിപ്രായം